ഓ ഇത് ശാന്തേച്ചി അല്ലേ ആ ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് വച്ചാൽ എനിക്ക് ഒരു ഹോട്ടൽ തുടങ്ങണമെന്ന് ഉള്ള ഒരു ആശ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സ്ഥല കച്ചവടക്കാരനാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾക്ക് കുറച്ച് ഒരു ഹോട്ടല് തുടങ്ങാൻ കുറച്ച് സ്ഥലം വേണേനു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം ആ അത്രയും മതിയാവും ആയിരിക്കും അപ്പോൾ നിങ്ങളെ കസ്റ്റഡിയിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ആ നമ്മളിപ്പോൾ വലിയ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒന്നും അല്ലപ്പാ നമ്മൾക്ക് ഒരു ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ ഓ ഹോട്ടലാറ്റം മതി തട്ടു കടയേക്കാളും ഒരു രണ്ട് പടി മുകളിൽ നിൽക്കുന്ന ഒരു ഹോട്ടല് ആ ഏകദേശം നല്ല സൗകര്യം ഉള്ള ഹോട്ടലായിരിക്കും നല്ല കുറച്ച് നല്ല നല്ല ഭക്ഷണം എല്ലാം വിളമ്പുന്ന ഹോട്ടലാണ് ഉദ്ദേശിക്കുന്നത് ആ അപ്പം നമ്മൾക്ക് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഹോട്ടൽ അഥവാ അതിന് എന്തായാലും ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ എന്തായാലും അവിടെ ഏർപ്പെടുത്തണമല്ലോ മാലിന്യം എല്ലാം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കുറച്ചും കൂടി വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാലിന്യം എല്ലാം നിക്ഷേപിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് വീടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വല്ലാത്ത ചൊറ ആയിരിക്കുമല്ലോ അപ്പോൾ എന്നാൽ ചെയ്യുക അപ്പോൾ അതിൻ്റെ അടുത്ത് വീടും കാര്യങ്ങളെല്ലാം ഉണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഗ്രാമപ്രദേശം ആണ് ഉള്ളത് അപ്പോൾ വീട് എല്ലാം അടുത്ത് അടുത്ത് ഉണ്ടാവുമോ ആൾക്കാർ ആകർഷിക്കുന്ന സ്ഥലം ആണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത് അല്ലാതെ ഇപ്പം ആൾക്കാറൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് കച്ചവടം കുറവ് ആയിരിക്കുമല്ലോ ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആയിരിക്കണം അല്ലാതെ എന്താണ് വീടും ഒന്നും ഇല്ല വീട് ഇല്ല എന്ന് ആ ഉണ്ടായാൽ ശരി ആവൂലപ്പാ കുറച്ച് എല്ലാം വീട് വേണ്ടേ എന്നാലല്ലേ കച്ചവടം നമുക്ക് കിട്ടൂ വീടിൻ്റെ കച്ചവടം നമുക്ക് കിട്ടണ്ടേ അപ്പം അത് മാത്രമല്ല പൊറത്തൂട്ട പോവുന്ന വണ്ടിയെല്ലാം എടുത്ത് പോവുന്ന ആൾക്കാർ ഉണ്ടാവും വീട് ഉണ്ടാവുമ്പോൾ വണ്ടി എടുത്ത് ആൾക്കാർ പോവുകയും ചെയ്യും നമ്മൾ ക്ക് ആ കച്ചവടം കുറച്ച് അധികം കിട്ടും ഇതിന് മുന്നേ ആയിട്ട് അവിടെ എന്തെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ സ്ഥലത്ത് ചേച്ചി അതല്ല വാസ്തു ദോഷം ആയിട്ട് എന്തെങ്കും പ്രശ്നം അതിനകത്ത് ഉണ്ടോ ആ അപ്പോൾ ചേച്ചി എന്നാൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് വച്ചാൽ ഇപ്പോൾ സെൻറ്റിന് എത്ര തരാന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അയ്യോ ചേച്ചി അത് ഭയങ്കരം കൂടുതലാണ് ഗ്രാമപ്രദേശാണ് നിങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ മൂന്ന് ലക്ഷം എന്നെല്ലാം പറയുമ്പം അത് ഭയങ്കരം കൂടുതൽ അല്ലപ്പാ അയ്യോ ചേച്ചി മൂന്ന് ലക്ഷത്തിനാണെങ്കിൽ എന്നാൽ സ്ഥലം വേണ്ടപ്പാ അത് നമ്മൾക്ക് അങ്ങ് താങ്ങാൻ ആവില്ല ആ രണ്ടേ കാൽ രണ്ട് എല്ലാം ആണെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ടോക്കൺ അഡ്വാൻസ് എത്ര വേണ്ടി വരും ആ എന്നാൽ നമ്മൾക്ക് നോക്കാം കാണാം